നൃത്തത്തെ കുറിച്ചുള്ള ഏറ്റവും വലിയ തെറ്റിദ്ധാരണ എന്നു പറയുന്നത് നൃത്തം എപ്പോഴും സ്ത്രീകൾക്ക് മാത്രം ചെയ്യാവുന്നയൊരു കലയാണ് എന്നുള്ളതാണ് പണ്ടുകാലം മുതൽ ദേവദാസി സമ്പ്രദായം നിലനിന്നിരുന്ന കാലം മുതൽ തന്നെ നൃത്തം ചെയ്തിരുന്നത് സ്ത്രീകൾ അല്ലെങ്കിൽ പെൺകുട്ടികളായിരുന്നു അതുകൊണ്ട് തന്നെ നൃത്തത്തെ കുറിച്ചുള്ള ധാരണയിൽ എപ്പോഴും മുൻപന്തിയിൽ നിൽക്കുന്നതും സ്ത്രീകൾ തന്നെയാണ് ഇപ്പോൾ പക്ഷെ നമ്മുടെ സമൂഹം മാറി നമ്മുടെ കാലം മാറുന്നതിനൊപ്പം ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും തുല്യമായ പദവിയാണ് നമ്മൾ കൊടുക്കുന്നത് എന്ന കാരണം കൊണ്ടുതന്നെ നമുക്ക് സ്ത്രീകളായാലും കുട്ടി കുട്ടി സ്ത്രീകളും കുട്ടികളും അല്ലെങ്കിൽ ആൺകുട്ടികൾ നൃത്തം പഠിച്ചുകൂട എന്നുള്ള ഒരു സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമേ നൃത്തം പഠിക്കാവു എന്നൊരു ധാരണ നമ്മുടെ സമൂഹത്തിൽ നിന്ന് തുടച്ചു നീക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു അതിപ്പോൾ ഇല്ല പൂർണ്ണമായും വീട്ടുകാർ കുട്ടി പെൺകുട്ടികളെയാണ് നൃത്തത്തിന് വിടുന്നത് എങ്കിൽപ്പോലും ആൺകുട്ടികളേയും പെൺകുട്ടികളെപ്പോലെ തന്നെ നൃത്തം അഭ്യസിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പവുമില്ല എന്ന് അവരെ എല്ലാവരെയും ബോധിപ്പിക്കാൻ ഈ സമൂഹത്തെ ആ ആ ഒരു ധാരണയിൽ നിന്ന് മാറ്റിയെടുക്കാൻ നമ്മൾ ഓരോരുത്തരും കടപ്പെട്ടവരാണ് നൃത്തം എന്നു പറയുന്നത് ഒരു ഒരു നമ്മുടെ ശാരീരികമായും മാനസികമായിട്ടും നമ്മുടെ എല്ലാ തലങ്ങളിലും നമുക്ക് വളരെ വളരെയേറെ ഡെവലപ്പ്മെന്റ് ഉണ്ടാവുന്ന ഒരു കലാരൂപമാണ് നമ്മളുടെ ആയുസ്സിനു തന്നെ കൂടുതൽ കൂടുതൽ കിട്ടാൻ നൃത്തം കൊണ്ട് കഴിയുന്നു എന്നുള്ളതാണ് നൃത്ത അഭ്യാസികൾ എല്ലാം തന്നെ എപ്പോഴും ചെറുപ്പമായിട്ടിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ നൃത്തത്തെ കുറിച്ചുള്ള ഏറ്റവും വലിയ തെറ്റിദ്ധാരണയായ സ്ത്രീകൾക്ക് മാത്രമേ നൃത്തം അഭ്യസിക്കാവു അല്ലെങ്കിൽ സ്ത്രീകളും അത് ആ സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട കലാരൂപങ്ങൾ മാത്രമേ നൃത്തം എന്ന ഒരു കലയെ പ്രോത്സാഹിപ്പിക്കാവു എന്നുള്ളത് നമ്മൾ നമ്മളുടെ സമൂഹം പണ്ടു മുതൽക്കേ കൊണ്ടുനടക്കുന്ന ഒരു തെറ്റിദ്ധാരണ ആയതുകൊണ്ട് തന്നെ നമ്മളുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മളുടെ നമ്മളുടെ ലോകത്തുള്ള നമ്മൾക്ക് നമ്മൾ താമസിക്കുന്ന പ്രദേശങ്ങളിലുള്ള എല്ലാവരും തന്നെ നമ്മൾ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അല്ലെങ്കിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഈ കല അഭ്യസിപ്പിക്കുവാനും അത് എല്ലാം നന്നായിട്ട് പ്രചരണത്തിലാവാനും അത് അതുമൂലം അതുമൂലം തന്നെ നമ്മളുടെ ലോകഗതികൾ മാറ്റി മറിക്കാനും കഴിയണം എന്നതാണ് എൻ്റെ ഒരഭിപ്രായം എല്ലാ കലാരൂപങ്ങൾക്കും എല്ലാവർക്കും തുല്യ പ്രാധാന്യം നൽകണം അതിന് ഇന്ന കലയ്ക്ക് ഈ ഈ ഈ കല ഇന്ന ആളെ അഭ്യസിക്കാവു എന്നുള്ള ഒരു എന്നുള്ള ഒരു ധാരണ പൊതു സമൂഹത്തിൽ നിന്ന് മാറ്റേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു